ഗൂഗിൾപേയും ഫോൺപേയുമൊക്കെ നല്ലതാണ് നമുക്ക് പെട്ടെന്ന് ഇപ്പൊൾ പൈസയൊന്നും ചില്ലറയില്ലാത്തോരടുത്തൊക്കെയാണെങ്കില് തന്നെ അക്കൗണ്ട് ഉണ്ടേൽ നമുക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറ് ചെയ്യാനും അതുപോലെ എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ പൈസയൊന്നുമില്ലാതെ കുടുങ്ങുന്നവർക്ക് പൈസ സേ സേവ് റോളിൽ വയ്ക്കാനും ഏറ്റവും നല്ലത് ഓൺലൈൻ വഴി ചെയ്യുന്നതാണ് അതിന് നമ്മളെ കയ്യിലോവറ് വച്ച് കഴിഞ്ഞാല് പ്രശ്നമെന്ന് വച്ചാല് കള്ളന്മാരുണ്ടെങ്കിൽ കള്ളന്മാരെടുത്തോണ്ട് പോവും അതൊന്നൂല്ല ഇതാകുമ്പം ഫോൺപേക്കും ഗൂഗിൾപേയൊക്കെയാണെങ്കിൽ നമ്മളെ കയ്യില് സേഫ്റ്റി ആയിരിക്കും അതേപോലെ നമുക്ക് പെട്ടെന്നിപ്പോൾ കയ്യില് പൈസ ഇല്ലാണ്ടായി എണ്ണയടിക്കാനൊന്നും പൈസ ഇല്ലാണ്ടായി പെട്ടെന്ന് ഗൂഗിൾപേ വഴി ഇപ്പോൾ പൈസ സെന്റ് ചെയ്യാനും അതേപോലെ എടിഎം പോയെടുക്കാനും ഒക്കെ സാധിക്കും അതേപോലാണ് ഇപ്പം നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഗൂഗിൾപേയാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുകയുള്ളു